പാട്ടുകൾ ഒരുപാട് കേൾക്കാറുണ്ട് പാട്ടുകൾ പാട്ടുകൾന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അപ്പോൾ പാട്ടുകൾ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരുമില്ല ഞാനും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ എന്ന് പറയുന്നത് നമ്മുടെ യേശുദാസാണ് യേശുദാസിൻ്റെ സൗണ്ട് എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്താന്ന് അറിയില്ല ആ ആ ഒരു പ്രത്യേക സൗണ്ട് നമുക്ക് കേൾക്കുമ്പം നമുക്ക് ഒരു കുളിരു വരും നാട്ടിലിവിടെ നാട്ടിൽ അതു കൂടാതെ നാട്ടുകാർ ഇവിടെ നാടൻ പാട്ടുകൾ ഇവിടെ നാട്ടിലെ ആൾക്കാർ ഒരുപാട് പേർ പാട്ട് പാടാറുണ്ട് അന്നേരം ഓരോ സ്ഥലങ്ങളെ പറ്റിയും ഓരോ കാര്യങ്ങളെ പറ്റിയും നാടൻ പാട്ടുകൾ കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് നമ്മൾ ചിന്തിച്ച് പോകും ആ ഒരു പാട്ട് എന്ന് പറയുന്നത് വളരെ ഏതൊരു സാധാരണക്കാരനും മനസിലാകുന്ന രീതിയിലാണ് ആ പാട്ടിരിക്കുന്നത് ഒരു പ്രത്യേക തരം താളവും അതിൻ്റെതായ ഒരു ബീറ്റും അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് ഒന്ന് എല്ലാവരും ഒന്ന് തുള്ളാൻ തുള്ളിയാലോ എന്ന് വരെ ഒന്ന് ആലോചിച്ച് പോകും നാടൻ പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ അപ്പം പാട്ടുകൾ ഇഷ്ടമല്ലാത്തതായിട്ട് ആരും ഇല്ല അപ്പോൾ എല്ലാവരും പാട്ടുകൾ കേൾക്കുന്നതാണ്